ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് മതം ഒരു അനുഷ്ഠാനമായി

കൊണ്ടുപോകുന്നുണ്ട് പൊതുവിൽ ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ നാല് തരത്തിലുള്ള മതവിശ്വാസങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ക്രിസ്തു മതവും ഹിന്ദു മതവും ഇസ്ലാം മതം അതുപോലെ സിക്ക് മതം അപ്പം ഈ ഓരോ മതത്തിലും വിശ്വസിക്കുന്നവർ അവരുടെ അനുഷ്ഠാനങ്ങൾ അവരുടേതായ രീതിയിൽ കൊണ്ടുപോവുകയും അനുഷ്ഠാനിക്കുക അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എനിക്ക് മറ്റ് മതങ്ങളിലും ഓരോ മതങ്ങളിലും അവരുടെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ക്രിസ്തുമതത്തിൽ ഉള്ള അവരുടെ ആചാരം എല്ലാ സൺഡേയും അവർ കുർബാന കൊള്ളണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു നിർബന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു അനുഷ്ഠാനമൊക്കെ എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് അതുപോലെ മുസ്ലിങ്ങൾ ആണെങ്കിൽ ഫ്രൈഡേ ആണുങ്ങൾ എന്ത് ചെയ്യണം അവർ നിസ്ക്കരിക്കുന്നതിന് വേണ്ടീട്ട് പോവുകയും അല്ലാതെ അവരുടെ നിസ്ക്കാര സമയങ്ങളുണ്ട് സ്ത്രീകൾക്ക് നിസ്ക്കരിക്കുന്നതിനുള്ള സമയമുണ്ട് അതൊക്കെ ദൈവത്തിൽ വിശ്വസിച്ച് അവർ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കർമങ്ങളാണ് ഹിന്ദു മതത്തിലാണെങ്കിലും അവർ ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്നു നിർബന്ധത്തോട് കൂടി ക്ഷേത്രത്തിൽ ഇന്ന ദിവസം എത്തണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ക്ഷേത്രത്തിലില്ല നമുക്ക് നമുക്കനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില എന്താണ് വ്രതങ്ങളുണ്ട് അത് അത് ആ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ഇന്ന സമയങ്ങളിൽ ക്ഷേത്രത്തിൽ ചെല്ലണം എന്ന് അങ്ങനെയുള്ള ചില ഇതൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങൾ ഓരോ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമാണ് ഇതൊക്കെ എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് മതം ഇങ്ങനെ ആണെങ്കിൽ പോലും മനുഷ്യരെല്ലാവരും ഒന്ന് ഒന്നു തന്നെയാണ് ഒരു പൗരൻ വെ ഒരു പൗരന് ആ പൗരൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്ന മതത്തിലുള്ള അനുഷ്ഠാനങ്ങൾ അയാൾക്ക് നടത്താം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ ചെയ്യാം അപ്പോൾ അയാൾ വിശ്വസിക്കുന്ന മതമാണ് അയാളുടെ ആ വിശ്വാസങ്ങൾ ആ അല്ലാതെ മനുഷ്യർ തമ്മിലുള്ള വേർതിരിവല്ല പണ്ടു കാലത്ത് അങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനോ പൊതു വഴിയിലൂടെ നടക്കുന്നതിനോ ഉള്ള അവകാശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിട്ട് വളരെ അധികം വികാസം പ്രാപിച്ചിരിക്കുന്നു ഇന്ന് ജാതി ജാതിയും മ മതവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും മനുഷ്യർ എല്ലാവരും ഒന്ന് ഒന്നു തന്നെയാണ് അവർ ഒരേ മനസ്സോടു കൂടി ഒരേ ഒരേ മനസ്സോടു കൂടി ഒരു കൂട്ടമായിട്ട് ജീവിച്ചു പോകുന്നു ഇന്ത്യൻ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നു ഇപ്പം ഇന്ത്യൻ മതം ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിനൊരു പങ്കുണ്ട് എങ്കിലും മനുഷ്യർ തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് അവിടെ ഇല്ല സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പോലും അവർ ഒരു കൂട്ടമുണ്ട് അവർക്ക് ജാതി എന്തെന്നോ മതമെന്തെന്നോ പോലും വലിയ പിടിയുണ്ടാവില്ല ഓരോരുത്തർ ഒരാൾ പള്ളിയിൽ പോകുന്നു ഒരാൾ ക്ഷേത്രത്തിൽ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണയല്ലാതെ ആ ഞാൻ ഹിന്ദു മതമാണ് അവൻ ഇസ്ലാമാണ് അവന് അവനോട് മിണ്ടാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെയില്ല അവർ വിശ്വസിക്കുന്ന മതങ്ങളിൽ അവർ വിശ്വസിച്ച് പോവുകയും ഒരു കൂട്ടായി ഒരുമിച്ചിരുന്ന് കളിക്കുകയും ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒക്കെയും ചെയ്യുന്നു ഇപ്പം മതത്തിന് മതത്തിൻ്റെതായിട്ടുള്ള പങ്ക് പങ്കുണ്ട് ഇപ്പോൾ ക്രിസ്തുമതക്കാർ ബൈബിളിൽ വിശ്വസിക്കുന്നു ഹിന്ദു മതക്കാർ രാമായണത്തിൽ വിശ്വസിക്കുന്നു അതുപോലെ മുസ്ലീങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുന്നു ഇതെല്ലം ചേർന്ന് മനുഷ്യർ ഒന്നായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു